പത്രത്തിലെ വാർത്തകൾ മാത്രമല്ല വായിക്കുന്നത് പത്രത്തിലുള്ള വിഷയങ്ങളെല്ലാം കൃത്യമായിട്ടും ഒരു ഫ്രണ്ട് പേജ് മുതൽ ലാസ്റ്റ് പേജ് വരെ എല്ലാ വാർത്തകളും വായിക്കും കോമിക്ക് വായിക്കും എല്ലാം പരസ്യങ്ങള് വരെ നോക്കും എല്ലാം വായിച്ച് നോക്കാറുണ്ട് അതിനകത്ത് ഇപ്പോള് ഏത് വാർത്തയാണ് എല്ലാത്തരം വാർത്തകളും വായിക്കും ഒരു മൂന്ന് നാല് മൂന്ന് പത്രം മിനിമം എങ്കിലും നോക്കും മൂന്ന് കമ്പനിയടെ പത്രം ഏതായാലും ഒരു ദിവസം വായിക്കാറുണ്ട് അങ്ങനെ പോകുന്നു കോമിക്സാണ് എനിക്കേറ്റവും ഇഷ്ടം പത്രത്തില് വരുന്ന കോമിക്കുകള് അങ്ങനെയൊക്കെയുള്ള ഹാസ്യപരമായിട്ടുള്ള കാര്യങ്ങള് വാർത്താ കാര്യങ്ങള് പരസ്യ കാര്യങ്ങള് എല്ലാം നോക്കും രാവിലെ പത്രം വന്നുകഴിഞ്ഞാൽ ഒരു ചായയൊക്കെ എടുത്തുവെച്ചിരുന്ന് പത്രം വായിക്കുന്നു അങ്ങനെ എല്ലാം മിക്കവാറും എല്ലാത്തരം മൂന്ന് പത്രം ഏതായാലും ഒരു ദിവസം വായിക്കും വാർത്തകള് മാത്രമായിട്ട് ഒരു പത്രം അങ്ങനെ നോക്കാറില്ല വായിക്കുന്ന പത്രം പൂർണ്ണമായിട്ട് എല്ലാ എല്ലാ വാർത്തകളും നോക്കും പരസ്യമാണെങ്കിലും നോക്കും എല്ലാത്തരം വാർത്തകളും വായിക്കും എന്താണെങ്കിലും എല്ലാ ദിവസവും രാവിലെ ഈ പത്രങ്ങളൊക്കെ വായിക്കും പത്രങ്ങളൊക്കെ വായിച്ചുകഴിഞ്ഞിട്ട് മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയുള്ളൂ ദിവസം ആരംഭിക്കുന്നത് തന്നെ പത്രം വായനയോടുകൂടിയാണ് രാവിലെ എഴുന്നേറ്റുവന്നാൽ പത്രം വായനയാണ് മെയിൻ അത് കഴിഞ്ഞിട്ടേ മൊബൈലാണെങ്കിലും എടുക്കുകയുള്ളൂ ടി വി കാണലാണെങ്കിലും ഉള്ളൂ എന്താണെങ്കിലും എന്താണ് പ്രോഗ്രാം ആണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളേയുള്ളൂ മനുഷ്യജീവിതത്തിൽ ഒരു മനുഷ്യന് ഏതൊരു മനുഷ്യനാണെങ്കിലും രാവിലെ തുടങ്ങുന്നത് പത്രത്തിലായിരിക്കും അന്നത്തെ ഒരു ദിവസം തുടങ്ങുന്നത് പത്രം വായനയിലായിരിക്കും തുടക്കം അങ്ങനെ എല്ലാ കാര്യങ്ങളും പത്രത്തിൽ സാമാന്യം എല്ലാ വാർത്തകളും കിട്ടും ടി വിയിലും കിട്ടും എന്നാലും പത്രം വായിക്കുന്നതാണ് എല്ലാവർക്കും ഒരു മനസ്സിനൊരു സുഖം പത്രം വായിച്ചുകഴിയുമ്പോള് ഒരു തൃപ്തിയായി അന്നത്തെ ദിവസം എല്ലാം നമുക്കൊരു സുഖമുണ്ട് അങ്ങനെ പത്രമൊക്കെ വായിക്കും എല്ലാവരും തന്നെ ഒട്ടുമിക്കയാൾക്കാരും പത്രമൊക്കെ വായിക്കുന്നവരായിരിക്കും മോശമായിട്ടുള്ള ഇങ്ങനെ പരസ്യങ്ങളോ അങ്ങനെയൊക്കെയുള്ള പടങ്ങളൊ ഒന്നും പത്രങ്ങളിലൊന്നും വരാറില്ല വലിയ കുഴപ്പമില്ലാത്ത നല്ല കാര്യങ്ങളെല്ലാം തന്നെ വായിക്കും